ഹലോ ഇത് അക്ഷയ സെൻ്റർ അല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞാൻ ഇപ്പം നിലവിൽ ഇപ്പം അടുത്ത് വിവാഹ മോചനം നേടിയിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ രേഖകളിലൊക്കെ അവിടുത്തെ ഹസ്ബൻറിൻ്റെ അവിടുത്തെ അഡ്രസ്സോകളാണ് അപ്പം അത് എൻ്റെ ഐ ഡിയിലേക്ക് എനിക്ക് മാറ്റണം എൻ്റെ പാൻ കാഡ് അതിന് എന്തൊക്കെയാണ് വേണ്ടത് ഇനി അത് ചെയ്യുകയാണെങ്കിൽ എന്താവാറ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മറ്റ് ഐ ഡികളിൽ പറ്റുമോ എൻ്റെ അക്കൗണ്ടന് എന്തേലും ബാധിക്കുമോ അത് പിന്നെ നേരിട്ട് ഓഫീസിൽ വരേണ്ടതുണ്ടോ അത് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റുമോ പിന്നെ പേര് മാറ്റൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലല്ലോ എൻ്റെ പാൻ കാർഡ് പുതുക്കി പുതുക്കിയിട്ട് ആണ് ഇപ്പം അടുത്ത് എൻ്റെ പേര് അതിൽ ഉണ്ടായിരുന്നത് ഇപ്പം അത് അവരുടെ അഡ്രസ്സോന്ന് മാറ്റി എൻ്റെ അഡ്രസ്സിലോട്ടൊന്ന് മാറ്റണം അപ്പോൾ അതിന് എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് ഒന്ന് പറഞ്ഞ് തരുമോ പിന്നെ എന്താ പാൻ കാർഡ് മറ്റ് ഐ ഡികളിലൊക്കെ ഇപ്പം അടുത്താണ് അവിടുത്തെ അഡ്രസ്സിലേക്ക് മാറ്റിയത് അപ്പോൾ ആ അഡ്രസ്സുകളൊക്കെ ചേഞ്ച് ആക്കേണ്ടതുണ്ടോ പാൻ കാഡ് റെഡിയാക്കണമെങ്കിൽ ആ അഡ്രസ്സ് മാറ്റണമോ അപ്പം ഈ അഡ്രസ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന് വേറെ എന്തേലും പ്രൂഫുകളും എല്ലാം വേണമോ നിലവിൽ എന്താ ഒരു വൺ ഇർ വൺ ഇയറായിട്ടുള്ളൂ അത് മാറ്റിയിട്ട് ഐ ഡികളുടെ അഡ്രസ്സ് ഒക്കെ അപ്പോൾ എന്താണ് ഇപ്പം ഡിവോഴ്സ് വിവാഹ മോചനമായിട്ട് ഇപ്പം ഏഴ് മാസമായി അപ്പം അതിനിപ്പോൾ പുതിയ ഒരു ഐ ഡി കാർഡ് എന്ന് അതിലേക്ക് മാറ്റണം മാറ്റാൻ സഹായിക്കാമോ അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലുമൊന്ന് പറഞ്ഞ് തരുമോ ഇത് നേരിട്ട് വരേണ്ടി വരുമോ അത് ഓൺലൈൻ ആയിട്ട് എന്തേലും സംവിധാനം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് തരുമോ ഓക്കെ താങ്ക് യൂ